ഇന്ത്യൻ മാധ്യമങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഇന്ത്യയിൽ തന്നെ ഇഷ്ടം പോലെ മാധ്യമങ്ങൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് നമ്മൾ കൂടുതലായിട്ടും കാണുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം ചാനലുകളാണ് കൂടുതലായിട്ടും കാണുന്നത് അപ്പം മലയാളത്തിൽ തന്നെ ട്വൻറ്റി ഫോർ ഉണ്ട് പിന്നെ ന്യൂസ് എയിറ്റീൻ എന്ന പറഞ്ഞ ചാനലുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഇണ്ട് ജനം ടി വി മീഡിയ വൺ പിന്നെ റിപ്പോർട്ടർ ഇങ്ങനെ ഇപ്പോൾ പുതുതായിട്ട് വന്ന പല പലതരം ചാനലുകൾ കാര്യങ്ങൾ ഒക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് കോഴിക്കോട് വിഷൻ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടിൻ്റെ ചാനൽ ഉണ്ട് അങ്ങനെ പലരീതിയിലുള്ള ചാനലുകൾ ഉണ്ട് അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് നല്ല വാർത്ത ഏതിലാണോ നൽകുന്നത് അത് നല്ല രീതിയിൽ കാണാൻ നല്ലവണ്ണം നമുക്ക് ഇപ്പം പ്രസന്റ് ചെയ്യുന്ന അങ്ങനത്തെ ചാനലാണ് കൂടുതലായിട്ടും കാണുക ഇപ്പോൾ ഒരേ നമ്മളിപ്പോൾ ഏത് ഇപ്പോൾ മാർക്കിസ്റ്റു പാർട്ടിൻ്റെ ചാനൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൈരളി ന്യൂസ് ഉണ്ട് പിന്നെ മനോരമ ന്യൂസ് ഉണ്ട് അതായത് അത് നമ്മുടെ കോൺഗ്രസ്സുകാരുടെ ന്യൂസ് ജനം ടി വി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ബി ജെ പിക്കാരുടെ ന്യൂസ് അങ്ങനെ കാണുന്നവരും ഉണ്ട് അതായത് ഒരു എന്താ പറയുക പാർട്ടി പാർട്ടീൻ്റെ എന്താ പറയുക ഇതുകൊണ്ട് നടക്കുന്നവർ ഒരു ചാനൽ മാത്രമേ അങ്ങനെ കാണാറുള്ളു അപ്പം പല രീതിയിലുള്ള അവതരിപ്പിക്കുന്നത് നല്ല രീതിലാണ് അവർ ചെയ്യുന്നത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം